ഇപ്പോൾ അദ്ധ്യാപകർ സ്കൂളുകളിലെ കുട്ടികൾക്കു പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തെന്നു ചോദിച്ച ഞാനൊരു ടീച്ചറാകാൻ ആഗ്രഹിച്ച ഒരാളാണ് പക്ഷെ എനിക്ക് ചില അസൗകര്യങ്ങൾ മൂലം സിറ്റുവേഷൻ മൂലം എനിക്ക് ടീച്ചറാകാൻ പറ്റിയില്ല അപ്പം ഞാൻ ആ ആഗ്രഹിക്കാൻ തന്നെ ഉണ്ടായ കാരണമെന്നു പറയുന്നത് എൻ്റെ സ്കൂൾ ലൈഫിൽ എനിക്കുണ്ടായ കുറച്ച് ഇൻസിഡൻസാണ് അപ്പം എനിക്കീ പാർഷ്വാലിറ്റി എന്നു പറഞ്ഞ കാര്യത്തോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തതാണ് അപ്പം അതു കൊണ്ടു തന്നെ ഞാൻ വിചാരിച്ചു എനിക്കൊരു ടീച്ചറാകണം എല്ലാ കുട്ടികളെയും ഒരു പോലെ ശ്രദ്ധിക്കണം അവരെ കെയർ ചെയ്യണം കാരണം എല്ലാവർക്കും ഒരു ഒരു കഴിവായിരിക്കില്ല കിട്ടിയിരിക്കുന്നത് ഒരേ ക്യാരക്ടറും ആയിരിക്കില്ല അപ്പോൾ ഓരോ കുട്ടിയെയും നമ്മൾ ഇപ്പം ക്ലാസ്സിലൊരിരുപത് കുട്ടി ഉണ്ടെങ്കിൽ ഒരാളെ മാത്രമായിട്ട് നമുക്കു മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല അവൻ പഠിക്കാൻ കഴിവില്ല അല്ലെങ്കിൽ ആ അങ്ങനത്തെ എന്തെങ്കിലും കുറവുകളുണ്ടെന്നു പറഞ്ഞവനെ മാറ്റി നിർത്തുന്ന ഒരു ഒരിക്കലും ഒരു നല്ല ടീച്ചർ ചെയ്യാൻ ചെയ്യുന്നതാ ചെയ്യേണ്ട ഒരു കാര്യമല്ല അപ്പോൾ നമ്മൾ പഠിക്കുന്ന കുട്ടീനെ ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ ഒട്ടും പറ്റ് പഠിക്കാൻ പറ്റാ കഴിവില്ല അല്ലെങ്കിൽ ചില അസൗകര്യങ്ങൾ മൂലം പഠിക്കാനായിട്ട് സാദ്ധ്യത ഇല്ലാത്ത കുട്ടീനെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവരെ ആയിരിക്കും നമ്മൾ പഠി പ്പൊ ഇപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ് ഇപ്പം ഞാനും പഠിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാനും പഠിക്കുന്നൊരു കുട്ടിയാണപ്പം എനിക്ക് ചിലപ്പം പിക്ച്ചർസ് കണ്ടായിരിക്കും ചിലപ്പം ഒരു ക് കാര്യങ്ങൾ പെട്ടെന്ന് മൈൻഡിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതുന്നതിലൂടെയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു തന്ന് കേട്ടു പഠിക്കുന്നതായിരിക്കും അപ്പോൾ പലർക്കും പല പല തരത്തിലുള്ള ഇതു നമുക്കത് കണ്ടു പിടിക്കാൻ പറ്റും ഒരു ടീച്ചറിന് അത് കുറച്ചും കൂടി ഈസി ആണെന്നു പറയില്ല പക്ഷെ എന്നാലും അതു കണ്ടു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി അവർക്കു കിട്ടും എന്തായാലും അതിനുള്ള ഒരു പ്രാക്ടീസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും അതിനുള്ള ഇത് കിട്ടും അപ്പോൾ ഒരു കുട്ടീനെ പോലും നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവൻ ഭയങ്കര ഒഴപ്പാണ് എന്നു പറഞ്ഞ് പാരെൻസിൻറ്റടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യാൻ ചെയ്യുന്ന ആ സമയത്ത് അവനെ നമ്മൾ കൂടുതലായിട്ടു ശ്രദ്ധിച്ച് അവനെ എന്താണവൻ്റെ കുറവ് എന്നു അവനെ ഒരു കൂടി പോയാൽ ഒരു ഒരാഴ്ച വാച്ച് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കുറവ് നമുക്ക് മനസ്സിലാകും ഒരു ടീച്ചറിന് ഉറപ്പായിട്ടു മനസ്സിലാകും അപ്പോൾ കുറച്ചവൻ്റെടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് എന്താ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അവനുറപ്പായിട്ടും നമ്മളെടുത്ത് അവനെന്താണ് പഠിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അവനുറപ്പായിട്ടും പറയും നമ്മളങ്ങനെ ആണല്ലോ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കണം അപ്പോൾ ഒരു ടീച്ചറിന് ഉറപ്പായിട്ടും ഒരു ബെസ്റ്റ് ഫ്രണ്ടാകാൻ പറ്റും അല്ലെങ്കിൽ ഒരു നല്ലൊരു പേരൻറ്റ് ആകാൻ പറ്റും അല്ലെങ്കിൽ നല്ലൊരു സിസ്റ്റർ അല്ല ഒരു ബ്രദറാകാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചിലപ്പം ചിലർക്ക് ചില ഇൻസിഡൻസ് കൊണ്ട് അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സുവരിക്കും ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞതു പോലെ ഞാൻ എനിക്കങ്ങനത്തെ പാർഷ്വാലിറ്റി അല്ലെങ്കിൽ എന്നെ ഒരുപാട് ശ്രദ്ധിക്കാത്തത് അങ്ങനത്തെ ഇത് ഉള്ളതു കൊണ്ട് എനിക്ക് നല്ലൊരു ടീച്ചറാകണമെന്ന് അതെൻറ്റൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ എന്താണ് അത് മറ്റ് എനിക്കിപ്പം ഒരു പഠിപ്പിക്കാനായിട്ടൊരു കുട്ടീനെ കിട്ടിയാൽ ഞാനാ കുട്ടിക്ക് എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം ഇത് പോലെ ഇപ്പം എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകണമെന്നില്ലല്ലോ അപ്പം ചിലർക്ക് പടം കാണിച്ചു കൊടുത്ത് പിക്ച്ചർസ് കാണിച്ചു കൊടുത്തിട്ടായിരിക്കും അവന്മാർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നെങ്കിൽ അവൻ പറഞ്ഞ് ഒരു വട്ടം അല്ലെങ്കിൽ ഒരു മൂന്നാല് വട്ടം പറഞ്ഞു കൊടുത്തായിരിക്കും ചിലപ്പം മനസ്സിലാകുക അല്ലെങ്കിൽ എഴുതി കൊടുത്തായിരിക്കും ഷോർട്ടായിട്ട് നോട്ടെഴുതി കൊടുത്തായിരിക്കും അവൻ മനസ്സിലാകുക ആ പിന്നെന്തുവാണ് ദേഷ്യം നമുക്കെല് ഈ ടീചർസൊക്കെയാകുമ്പം ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ദേഷ്യം വരും എന്നാലും നമ്മൾ നല്ല മൈൻ്റോടെ വന്ന് കുട്ടികളുടെ അടുത്ത് ദേഷ്യപ്പെട ദേഷ്യപ്പെടുന്നതിനെ കാട്ടിലും സ്നേഹം കാണിക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ ഒരാൾക്ക് പറഞ്ഞാൽ അടുത്ത് ഇരുത്തി പറഞ്ഞു കൊടുത്താൽ ഉറപ്പായിട്ടും അവൻ ആ ദേഷ്യം കാണിക്കുന്നതിനെക്കാട്ടിലും സ്നേഹം കൊണ്ടു കാണിക്കുന്നത് ഉറപ്പായിട്ടും അവൻ മനസ്സിലാകും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇത് ഒരദ്ധ്യാപിക അല്ലെങ്കിൽ അദ്ധ്യാപകൻ എന്ന നിലയിൽ ഒരു ടീച്ചർ ഒരു ബെസ്റ്റ് ടീച്ചർ വെറുമൊരു ടീച്ചറല്ലല്ലോ ആകാൻ വേണ്ടി നോക്കുക വെറുതെ പൈസക്കു വേണ്ടി ഒരു ടീച്ചറാകുക എന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല അപ്പം ബെസ്റ്റാണ് നല്ല ഒരു അദ്ധ്യാപികയാണ് നമ്മൾ നല്ലത് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നല്ലതായിട്ട് ജീവിച്ച് ചെയ്തു കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ വേറാൾക്കൊരു മാതൃകയാകുന്ന അപ്പം അതു പോലെ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പം എന്തുവാണ് ചിലപ്പോൾ ചില കുട്ടികൾക്ക് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ ത് പ്രോബ്ലംസുള്ള കുട്ടികളുണ്ടായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ സമാധാനം ഇല്ലാത്ത കുട്ടി അപ്പം അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പം സ്കൂളിൽ വരുമ്പോഴായിരിക്കും കുറച്ച് സമാധാനം കിട്ടുക അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ അടുത്ത് കുറച്ചു കൂടി സ്നേഹം കാണിക്കാനല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ളത് നമ്മൾ സഹായിക്കണമെന്നല്ല ഇതിനു വേണ്ട പ വേണ്ടപ്പെട്ട അധികൃതരോട് പറയുകയാണെങ്കിൽ അവരത് ഉറപ്പായിട്ടും തന്നെ ആക്ഷനെടുത്ത് എന്താണ് ആ കുട്ടിക്ക് ചെയ്യേണ്ട പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് അതുറപ്പായിട്ടും ചെയ്തു കൊടുക്കും അപ്പോൾ സ്കൂളുകളിൽ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം സ്കൂളുകളിൽ ഇല്ലാത്തൊരു കാര്യം സെക്ഷ്വൽ എഡ്യൂക്കേഷൻ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതു കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ് കാരണം ഇപ്പോഴത്തെ ബോയ്സും അതു പോലെ തന്നെ ഗേൾസും ഒക്കെ ഒരുപോലെ ഏത് ഫേയ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അത് അത് ഒന്നു പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ ഇപ്പം അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടത് വളരെ നല്ല കാര്യം തന്നെയാണ് അപ്പോൾ പിന്നെ സ്പോർട്സ് അങ്ങനത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും കുട്ടികളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അവരെ മെൻറ്റലി കുറച്ചും കൂടി യോഗാസ് ചെയ്യിപ്പിക്കുക പിന്നെ എക്സർസൈസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കുട്ടികളെ ചെയ്യിപ്പിക്കുക അവർക്ക് നല്ല ക്ലൈമറ്റ് നല്ല അറ്റ്മോസ്ഫിയർ ഒരു ടീച്ചറെന്ന ഒരു നിലയിൽ അവർക്ക് നമ്മളെ കൊണ്ട് നല്ലത് പറഞ്ഞു കൊടുക്കണം നല്ലത് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു നമ്മളവരുടെ റോൾ മോഡൽ റോൾ മോഡലാകേണ്ടത് വളരെ നല്ല കാര്യം അപ്പം അങ്ങനെക്കെ ഒള്ള കാര്യങ്ങൾ ചെയ്യുക